ഇപ്പോൾത്തന്നെ ഒരു ആ വിവാഹ ഫങ്ഷനോ ആ മറ്റ് ഏതെങ്കിലും ഒരു അമ്പലത്തിലെ ആയാലോ എന്തെങ്കിലും ഒരു ഫങ്ഷന് ഏത് തന്നെ എടുത്തായാലും ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ആയാലും മുതിർന്നവർക്ക് ആയാലും ഇഷ്ടപ്പെടുന്നത് പഴയ ഹിന്ദി സോങ്സിനോടുതന്നെയാണ് അത് തന്നെ എടുത്ത് അവർ ഡാൻസ് കളിക്കാനും പാടാനും എല്ലാം ഉപയോഗിക്കുന്ന എടുക്കുന്ന പാട്ട് അവർ പെട്ടെന്ന് അവരുടെ ഇതിലേക്ക് ഓടിവരുന്നതും പഴയ ഹിന്ദി ഗാനങ്ങളോട് തന്നെയാണ് മലയാളത്തിനെക്കഴിഞ്ഞു ഉപരിയായിട്ട് മലയാളികളായ നമ്മൾ തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഓരോതരത്തിൽ നോക്കിയാൽ ഹിന്ദി ഗാനങ്ങൾ തന്നെയാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ കഫി ഖുഷി കഫി ഹം ആ അങ്ങ് ആ സിനിമയിൽ പാട്ടുകളും അങ്ങനെയെക്കെ നോക്കുകയാണെങ്കിൽ ആ പണ്ടത്തെക്കാലത്ത് ഒരുപാട്പേര് പാടിനടക്കുന്ന ഒരു പാട്ട് തന്നെയാണ് ഇപ്പോൾത്തന്നെ സ്കൂള്കളിലും എന്തെങ്കിലും ചെറിയൊരു ഫങ്ഷൻ വെച്ചാലും കുട്ടികൾ കൂടുതലായിട്ടും ചൂസ് ചെയ്യുന്ന ഡാൻസ് കളിക്കാൻ അവർ ചൂസ് ചെയ്യുന്നത് ഹിന്ദി പാട്ടുകളോട് തന്നെയാണ് മലയാളത്തിനെ കഴിഞ്ഞും കൂടുതലായിട്ട് പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയ സിനിമയായ ജഗാനിലെ പാട്ടുകളും റാമയ്യാ ആ പാട്ടും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടംതന്നെയാണ് അവർക്കൊരു കംഫർട്ടബിൾ ആണെന്ന് ഇപ്പോൾ തോന്നുന്നു അത് കളിക്കാനായാലും എന്തിനായാലും അതിൻ്റെയെല്ലാം അർത്ഥം ഒരേ സംബന്ധിച്ചായാലും പെട്ടെന്ന് സ്റ്റെപ്പ് കിട്ടാനും അത് നോക്കി പഠിക്കാനുമെല്ലാം എളുപ്പം ഒരുപക്ഷെ ഹിന്ദി പാട്ടുകൾ തന്നെയാണ് മലയാളം മലയാളം സോങ്സിനോട് കൂടുതൽ മെലോഡിയസ്സ് ആയിപ്പോവുക അങ്ങനെയെക്കെയാ പോവുമ്പോൾ കളിക്കാനും ബിദ്ധിമുട്ടാണ് അവർക്കത് ഉൾക്കൊള്ളാനും പറ്റാത്ത സാഹചര്യം പക്ഷെ ഹിന്ദിയാകുമ്പോൾ കൂടുതൽ അവർക്ക് കളിക്കാനും ഒരു നല്ലരീതിയിൽ സ്റ്റെപ്പ് ഇടാനും അത് നോക്കി ചെയ്യാനും എല്ലാം പറ്റുന്ന ഒരു ടൈപ്പ് സോങ്ങ് ആണ് ഹിന്ദിയിൽ കൂടുതലായിട്ടുള്ളത് അവരുടെ വസ്ത്രധാരണം നമുക്ക് ഇപ്പൊഴത്തെ തലമുറയിലോട്ട് പകർന്ന് കിട്ടുന്നുണ്ട് ആ ആ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെത്തന്നെയാണ് പാട്ടുകൾ ആദ്യത്തിലായാലും സോൾജ്യർ ആ സിനിമയിലെ ആ പാട്ട് പഴയപഴയ സോൾജ്യർ ആ പാട്ടൊക്കെ നല്ല ഒരു ആണ് പിന്നെ രാജാഹിന്ദുസ്ഥാനി എന്നുപറഞ്ഞിട്ട് ആ സിനിമയിലുള്ള പാട്ട് പിന്നെ ചെയ്യചെയ്യാ എന്നുപറഞ്ഞിട്ട് അങ്ങനെത്തെ ഒരു പാട്ടുണ്ട് അതൊക്കെ ഒരുപാട് കുട്ടികളെയായാലും വലിയവരെ നമ്മളെ സംബന്ധിച്ചായാലും നമ്മൾ എപ്പഴും പാടിക്കൊണ്ട് നടക്കുന്നത് മലയാളം പാടുകളെക്കഴിഞ്ഞും കൂടുതലും ഹിന്ദി പാട്ടുകൾ തന്നെയാണ് അത് പെട്ടെന്ന് മനസ്സിനെ പിടിച്ച് കുലുക്കുന്ന ഒരു പാട്ടും നന്നായിട്ട് മീനിംഗ് മീനിംഗ്ഫുള്ള് ആയിട്ടുള്ള പാട്ടുകളാണ് എപ്പോഴും ഹിന്ദി പാട്ടുകൾ അതുപോലെത്തന്നെ എന്തോന്നാ പറയുകയാണെങ്കിൽ പഴയ ഹിന്ദി സോങ്സിൽ ഒരുപാട് അർത്ഥങ്ങളുള്ള ഒരുപാട് പാട്ടുകളുണ്ട് അതൊക്കത്തന്നെയാണ് നർത്തകരായ നർത്തകരെ സംബന്ധിച്ചിടത്തോളം ആ കളിക്കാനും കേൾക്കാനും ആസ്വദിക്കാനും ഇഷ്ടം അത് തന്നെയാണ് മലയാളത്തിനെക്കഴിഞ്ഞും കൂടുതലും ഹിന്ദി സോങ്സ് തന്നെയാണ് ഇത് ഒരു നർത്തകരെ സംബന്ധിച്ച് അത് അവർ ചൂസ് ചെയ്യുന്നത് ഒരു ഇപ്പോൾത്തന്നെ ഒരു എന്തെങ്കിലും ഒരു ഫങ്ഷൻ ഒരു ഓണമോ അങ്ങനെ എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടെങ്കിൽ രണ്ട് മലയാളം ഗാനത്തിന് ഡാൻസ് ചെയ്തിട്ട് തീർച്ചയായും ഒരു ഹിന്ദി പാട്ടുംകൂടെ അവർ ഉൾപ്പെടുത്തും എങ്കിലേയൊരു ഓളം ഒണ്ടാവുള്ളൂ അതുപോലെത്തന്നെയാണ് ഗാനമേള അങ്ങനത്തൊരു പ്രോഗ്രാമ് അമ്പലങ്ങളിൽ എടുക്കുകയാണെങ്കിലും മലയാളം പാട്ട് പാടുമെങ്കിലും കൂടുതലും ഒന്നോ രണ്ടോ ഹിന്ദി പാട്ടെങ്കിലും കൂടെ അവരത് പാടിനോക്കും പാടും പാടിയാൽത്തന്നെ ആളുകളൊന്ന് ഇളകുകയുള്ളൂ സ്റ്റേജ് അങ്ങനെ അതിപ്പോൾ അപ്പോൾ നർത്തകരെ സംബന്ധിച്ചിടത്തോളം കൂടുതലും ഇത് ഹിന്ദിപ്പാട്ടുകൾ ഒരുപാട് രീതീയിൽ സ്വാധീനിക്കുന്നു